അതിൻ്റെ ലൈസൻസ് ഓക്കെ ലൈസൻസ് ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ ലൈസൻസ് അതെ അല്ലേ അതെ ഓക്കെ നമുക്ക് ടു വീലറിൻ്റെ ടു വീലർ ഓടിച്ച് പരിചയം ഉണ്ടോ ഇതിന് മുമ്പ് അതെ ഓക്കെ നമുക്കിപ്പോൾ ടു വീലറിൻ്റെ അല്ലേ ആ അതെ പരീക്ഷ ഉണ്ടാകും നമുക്ക് ഇപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാകും ഒര് അമ്പത് ക്വസ്റ്റ്യൻ്റെ ഒര് കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാകും അത് ഒര് മുക്കാ മണിക്കൂറിൻ്റെ ആണ് നാപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അതിൽ ഒരു ഇരുപത് എണ്ണം പാസ് ആവണം ഇരുപത് എണ്ണം എങ്കിലും അറ്റൻഡ് ചെയ്ത് പാസ് ആവണം അപ്പോൾ അതിന് കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്നത് ഒരു ഇപ്പോൾ കൊടുക്കണമെങ്കിൽ ഒരു മാസത്തിന് ഉള്ളിൽ നമുക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കാൻ പറ്റും ലൈസൻസ് ഒരു രണ്ട് മാസം മൂന്ന് മാസം പിടിക്കും എങ്ങനെ ആയാലും കാരണം ഡ്രൈവിംഗ് അറിയില്ലാല്ലോ അപ്പോൾ അതിന് അനുസരിച്ച് ചിലപ്പോൾ ഡേറ്റ് നീളും ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആണ് കേറണ്ട അപ്പോൾ അത് മറ്റേ ടെസ്റ്റ് നമുക്ക് ഇപ്പോൾ എടുക്കാം ലേണേഴ്സ് അത് കഴിഞ്ഞതിനു ശേഷം അത് കഴിഞ്ഞ് ഫീസ് ആ ഫീസ് ഞാൻ പറയാം ഫീസ് നമുക്ക് രണ്ടിനും നാലിനും കൂടി പത്ത് രൂപേൻ്റെ അടുത്ത് വരും കാരണം ഒന്നും അറിയില്ലാലോ രണ്ട് നാലും പഠിച്ചിട്ട് തന്നെ വേണ്ടേ എടുക്കാൻ അത് നമുക്ക് പത്ത് രൂപേൻ്റെ അടുത്ത് ഫീസ് വരും അത് ആദ്യം ഒരു രണ്ട് രൂപ തന്നാൽ മതി പിന്നെ ക്ലാസ്സിന് വരുമ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കൂട്ടി തന്നാൽ മതി അങ്ങനെ ആണ് ഫീസിൻ്റെ വരുന്നത് പിന്നെ ആദ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് മറ്റേ ലേണേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാം അതിൻ്റെ ഇടയില് നമുക്ക് ക്ലാസ് നടത്തി കൊണ്ടിരിക്കാം ഡെയിലി വൈകുന്നേരം ഒര് അരമണിക്കൂർ ഒരു മണിക്കൂറ് ക്ലാസ് ഉണ്ടാകും എട്ട് ഇടാനും അതേപോല എച്ച് ഇടാൻ ഒക്കെ അതിന് ശേഷം ടെസ്റ്റിൻ്റെ ഡേറ്റ് മേടിച്ച് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പറ്റും എട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും അതേപോലെ എച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുവെങ്കിൽ നമുക്ക് ഡേറ്റ് എടുത്തതിന് ശേഷം ടെസ്റ്റിന് ഡേറ്റ് എടുക്കാം എന്നിട്ട് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ച രണ്ട് ആഴ്ച്ചേൻ്റെ ഉള്ള് തന്നെ ലൈസൻസ് വീട്ടിലേക്ക് വരുന്നതാണ് അവിടെ പോകേണ്ടി വരുന്നില്ല നമുക്ക് ഒക്കെ ഇവിടെ നിന്ന് തന്നെ എല്ലാം എഴുതി കൊടുക്കാം ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇവിടുന്ന് തന്നെ കൊടുക്കാം പിന്നെ നമുക്ക് അവിടെ പോകേണ്ടി ഒന്നും വരില്ല നമുക്ക് ടെസ്റ്റിന് മാത്രമാണ് അവിടേക്ക് പോകേണ്ടി വരുന്നുള്ളൂ പിന്ന അതേപോലെ ഇതിന് നമുക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിൻ്റെ പേപ്പറ് പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇത് അങ്ങനെ ഇള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ വേണം ആധാറിൻ്റെ ഒരു കോപ്പി രണ്ട് ഫോട്ടോ ഇനി ഉള്ളത് ഒക്കെ ഇത് ആ നമുക്ക് സ്റ്റാർട്ട് ആ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഒരു അതെ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തതിന് ശേഷം എഴുതാൻ പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ ശരി